ഏതെങ്കിലും ഒരു വാദ്യോപകരണം എനിക്ക് വായിക്കാൻ അറിയില്ല അത് എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട് കാരണം പള്ളിയിലൊക്കെ ഞാൻ ഗായക സംഘത്തോടൊപ്പം പാട്ടുമൊക്കെ പാടാറുണ്ട് അതിൽ കുർബാന മദ്ധ്യേ പാടാറുണ്ട് അപ്പോൾ ഒരു കീബോഡോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഉപകരണം കീബോഡ് തന്നെ ആയിക്കോട്ടെ പഠിച്ച് പള്ളിയിൽ പാട്ട് ഗായക സംഘത്തോടൊപ്പമൊക്കെ ഇരുന്ന് അത് ചെയ്യണം അല്ലെങ്കിൽ പഠിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് അത് അതാണ് അതാണ് എന്റെ ഒരു ആഗ്രഹം